വിദ്യാഭ്യാസ ലോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യുട്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ പൈസയുടെ നമുക്ക് അടക്കാൻ പറ്റാത്തൊരു വിദ്യാഭ്യാസ ലോണെടുക്കാറുണ്ട് എജുക്കേഷൻ ലോൺ എടുക്കാറുണ്ട് അപ്പോൾ അവർക്കത് ഇത്ര വർഷത്തിൽ ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ വർഷത്തിൻ്റെ ലോൺ അവർക്ക് കിട്ടും പൈസ കിട്ടും ആ ഒരു ഫീ അടക്കേണ്ട പൈസ അവർക്ക് കിട്ടും അപ്പം അതടയ്ക്കും അപ്പം അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചു പറഞ്ഞാൽ കോളേജിൽ നിന്നുള്ള ഈ ഫീ സ്ട്രക്ച്ചർ നമ്മൾ കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഫീ സ്ട്രക്ചർ ഓരോ ഓരോന്നിനും ഓരോ ഫീ ഉണ്ട് അപ്പം അതിൻ്റെ സ്ട്രക്ചർ ബാങ്ക് ലോണിന് അപ്ലൈ അപ്ലൈ ചെയ്യാനുള്ള ഓരോ അപ്ലിക്കേഷൻസ് ഫോം അത് നമ്മൾ ഈ അക്ഷയ കഫേ പോയിട്ടൊക്കെ എടുക്കണം അപ്പം അങ്ങനെയുള്ള ഫോം പിന്നെ ബാങ്കിൽ ബാങ്കിൽ നിന്നുള്ളൊരു ഫോമുണ്ട് അത് വാങ്ങണം പിന്നെ കോളേജിൽ നിന്ന് തന്നെ അവര് രണ്ട് ഫോം തരും ഒരു അഫർമേഷൻ ഫോമും തരും അഫൈലേയേഷൻ ലെറ്ററ ലെറ്റർ തരും പിന്നെ ഈ ഫീൻ്റെ സ്ട്രക്ച്ചറും കാര്യങ്ങളും ഇതൊക്കെയാണ് മെയിനായിട്ട് ബാങ്കിന് നമ്മള് ബാങ്കിൽ നിന്ന് നമ്മൾ ലോണെടുക്കാൻ വേണ്ടീട്ടുള്ള കാര്യങ്ങൾ